ഒരു കാർ ബുക്ക് ചെയ്യണമായിരുന്നു ഓ കണ്ണൂരേക്ക് പോവാനാണ് ഞാൻ തലശ്ശേരി മൂഴിക്കരയാണ് മൂഴിക്കര കോപാലം പാനൂർ റോഡ് മൂഴിക്കര കോടിയേരി ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് എൻ്റെ ലൊക്കേഷൻ നമുക്ക് പോവേണ്ടത് കണ്ണൂർ പറശ്ശിനിക്കടവിലാണ് ഏകദേശം നാല് പേരാണ് നമ്മൾ പോവാൻ ആഗ്രഹിക്കുന്നത് രാവിലെ ഒരു പത്ത് മണി ആവുമ്പോഴേക്ക് പോവണമെന്ന് വിചാരിക്കുന്നു നിങ്ങളെ എത്ര മണിയാവുമ്പോൾ ഇവിടെ എത്താൻ പറ്റും നിങ്ങൾക്ക് ഒരു പത്ത് മണി ആവുമ്പോഴേക്ക് എത്താൻ പറ്റുവോ ഏ എന്തെങ്കിലും ഡൗട്ടോ ലൊക്കേഷനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ തന്നെ വിളിച്ചാൽ മതി നിങ്ങളെ ഈ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ തന്നെ കിട്ടാൻ സാധ്യത ഇല്ലേ